ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയാണെന്നുണ്ടെങ്കിൽ ഈ കളകളും കരകൗശലങ്ങളും ഒക്കെ ചെയ്യുന്ന ആര്ട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് പക്ഷെ അവരൊന്നും ഈ ഫാഷന് ഷോകളിലോ പരസ്യങ്ങളിലൊന്നും പോയതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ സിനിമയിൽ പോയിട്ടുള്ള ഒരാളെ ഞാന് കണ്ടിട്ടുണ്ട് കാരണം നാടൻ പാട്ട് നമ്മുടെ നാട്ടിൽ നമ്മളുടെ സ്കൂളിലും കോളേജുകളിലൊക്കെ നാടൻ പാട്ടു പാടി അതിനൊരു ടീമാക്കി എടുത്തു അതില് അത് അത് നല്ല പോലെ എന്താ പറയുക നല്ല ഒരു ടീമായിട്ടു ലോക അറിയപ്പെടുന്നൊരു ടീമായിട്ട് മാറിയിട്ട് അവർ സിനിമയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ കടുവ സിനിമയിൽ മറ്റെ നാടൻ പാട്ട് പാടുന്നുണ്ട് ഒരു ടീം ആ പാലാപ്പള്ളിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സോങ് അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നു പോയിട്ടുള്ള ഒരേട്ടന്മാരാണ് ഇപ്പോൾ എന്താ അവർ അവരൊക്കെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരൊറ്റ പാട്ടു കൊണ്ട് അവർ നല്ലതു പോലെ ഫേമസായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എല്ലാ പ്രോഗ്രാമുകളിലും ഇപ്പം നാട്ടിലെ സെലിബ്രേറ്റീസെന്നു വേണമെങ്കിൽത്തന്നെ അവരെ പറയാൻ പറ്റും അങ്ങനെ എല്ലാറ്റിലും ഇപ്പോൾ അവരുടെ വയസ്സായവരാണെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരുടെ ആ പാട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാടിയിരുന്നൊരു പാട്ടായിരിക്കും പക്ഷെ അത് അതാ സിനിമയിലൂടെ കേട്ടപ്പോൾ നമുക്കത് മറക്കാന് പറ്റുന്നില്ല ഇങ്ങനൊരു പാട്ടല്ലായിരുന്നു അന്നു നമ്മൾ കേട്ടേ എന്നതുന്നുള്ള ചോദ്യത്തിലേക്ക് എത്തിപ്പോകാണ് കാരണം അവരെ അവരടിപൊളിയായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അത് നമുക്ക് അങ്ങനൊരു അവസരവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെപ്പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെ വലിയൊരു നിലയിലെത്തിപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ അവരിപ്പോൾ ഇവിടെ മാത്രമല്ല ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ദുബായിയിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടാണ് അവർ അവരുടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്റ്റ് ചെയ്യുന്നത് അടിപൊളിയായിട്ടാണിപ്പം അവർ പോകുന്നത്